ആ ആ സാറേ ഞാൻ ഒരു സ്റ്റുഡൻറ്റാണ് എൻ്റെ പേര് സിജി ബിജിമോൻന്നാണ് ഞാനിവിടെ കോളേജിലാണ് പഠിക്കുന്നത് അപ്പം എനിക്ക് ലൈബ്രറീലെ ആ എങ്ങനെയാണ് അംഗത്വം എടുക്കുന്നത് അപ്പോൾ എനിക്കവിടുന്ന് കുറച്ച് എനിക്ക് വായിക്കുന്ന സ്വഭാവം ഉണ്ട് അപ്പോൾ എനിക്ക് ബുക്ക്സൊക്കെ വായിക്കണന്നാഗ്രഹം ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട് എനിക്കിപ്പോൾ നാട്ടിൽ പോയി അവിടുത്ത ലൈബ്രറീൽ എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം സാറിൻ്റെ ഫോൺ നമ്പര് എൻ്റെ ഫ്രണ്ടാ തന്നതപ്പോൾ അവിടുത്തെ പ്രൊസീജിയറ് എങ്ങനാണ് നമ്മുടെ അവിടെ അംഗത്വം ലഭിക്കുന്നതിനുള്ള അതൊന്നറിഞ്ഞാൽ കൊള്ളാവായിരുന്നു പിന്നെ എനിക്കവിടുന്ന് കുറച്ച് ബുക്ക്സൊക്കെ എടുക്കാനാണ് ഉണ്ട് ആ ആ പിന്നെ എനിക്കറിയണം സാറേ നമുക്ക് ഇതിന് നമുക്കെന്തെങ്കിലും ഫീസോ കാര്യങ്ങളോ അല്ലെ ഡോണേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ ഒരു മാസം ഇത്ര രൂപ ആ അപ്പം ഒരു ആ അപ്പോൾ സാറേ ഒരു ബുക്ക് നമുക്കെത്ര ദിവസത്തേക്കെടുക്കാൻ പറ്റും അതിനൊക്കെ അങ്ങനെ വല്ല സമയങ്ങളുണ്ടോ അ ഓക്കെ പക്ഷേ അപ്പോൾ സാറേ നമുക്ക് രണ്ടാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരു സ്റ്റുഡൻറ്റ് കൂടിയാണ് അപ്പം എനിക്കിപ്പം തകഴീടെ ചെമ്മീനാണെങ്കിലും കയറ് അങ്ങനുള്ള നോവലുകളൊക്കെ വായിച്ച് വരുമ്പം കുറച്ച് കൂടെ സമയങ്ങൾ എടുക്കാമല്ലോ ആ അങ്ങനെ ആ അപ്പോൾ എനിക്കിപ്പോൾ ഒരു വായന അപ്പം ഞാനൊരു കാര്യം ചെയ്യാം സാറേ ഞാനിപ്പോൾ അടുത്ത ദിവസം തന്നെ ഞാൻ അവിടെ വന്നിട്ട് ഞാൻ സാറുവായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അന്നത്തെ ഫോമും എല്ലാം തന്നാൽ മതി അപ്പം എനിക്ക് പദവി തന്നെ നമ്മുടെ ലൈബ്രറിയായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോണന്നാഗ്രഹം ഉണ്ട് അതെനിക്ക് വായനാ ശീലം ഉള്ളത് കൊണ്ടെനിക്ക് ബുക്കില്ലാതെ പറ്റത്തില്ല എനിക്ക് ഒഴിവ് സമയങ്ങളൊക്കെ അപ്പോൾ എന്തായാലും സാറിൻ്റെ ഇപ്പം ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ എല്ലം സാറ് നല്ല രീതി തന്നെയാണ് സഹകരിച്ച് അതിനൊക്കെ പ്രത്യേകം നന്ദി പറയുവാണ് അപ്പോൾ അടുത്ത ദിവസം ഞാൻ സാറിനെ കാണാം ഓക്കെ സാറേ ഓക്കെ താങ്ക് യൂ